വസ്ത്രം തുന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾക്ക് മഫ്ളെയർ ഉണ്ടാക്കൻ അതായത് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു പീരിയഡ് തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു എന്താ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു അതിൽ ഒരു ഞങ്ങൾക്കൊരു ടീച്ചറുണ്ടായിരു ഒരു ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടീച്ചർ ഉണ്ടായിരുന്നു അപ്പം ടീച്ചറ് ഒരു പ്രാവശ്യം ഞങ്ങളെ മഫ്ലെയറ് തുന്നാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആഴ്ചയിൽ അതൊരു വണ്ണ് അവർ മാത്രമാണ് ക്ലാസ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ വൺ അവറ് ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങളെ ഓരോ ദിവസം ടീച്ചറ് ഇപ്പം ഈ വൺ അവർ ക്ലാസ് എന്ന് പറഞ്ഞാലും നമുക്കത് ഒരു പീരീഡ് കൊണ്ട് ഫുള്ളായിട്ടത് പഠിപ്പിച്ച് തരാനൊന്നും പറ്റത്തില്ല അപ്പം നമുക്ക് ക്രോഷിയോ ക്രോഷിയോ എന്ന് പറഞ്ഞൊരു എക്യപ്മെൻ്റുണ്ട് അത് നെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സൂചിനൂലല്ല ശരിക്കും മഫ്ലെയറ് ചെയ്യുമ്പോൾ നമ്മളുപയോഗിക്കുന്നത് ക്രോഷിയോ എന്ന് പറഞ്ഞൊരു സാധനമാണ് പിന്നെ അപ്പം അങ്ങനെ അത് ചെയ്യുമ്പോൾ ക്രോഷിയൊ ആദ്യം നമുക്ക് ക്രോഷിയൊ വേടിക്കണം പിന്നെ അതിനാവശ്യമായ നമ്മുടെ എന്താണ് അതിനൊരു പ്രത്യേകം നൂലല്ല കമ്പിളി നൂലാണ് നമ്മളുപയോഗിക്കുന്നത് അതിങ്ങനെ നമുക്ക് കടയിൽനിന്ന് വേടിക്കാൻ കിട്ടും അപ്പം കമ്പി നൂലൊക്കെ വേടിച്ച് പല കളറില് പല ഡിസൈനിലൊക്കെയാണ് മഫ്ളേറ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുക പക്ഷെ ടീച്ചറ് ഞങ്ങളെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേടാണ് ഞങ്ങളെ ആദ്യം പഠിപ്പിച്ചത് ആദ്യത്തെ അവറിൽ ഞങ്ങളോട് ടീച്ചർ പറഞ്ഞു എല്ലാവരും ഇപ്പം ആ കമ്പിളി നൂലെന്ന് പറയുന്ന സാധനം നമുക്ക് ഇങ്ങനൊരു ഓരോ പന്ത് പന്ത് പോലെ കിട്ടുന്നത് പന്തിൻ്റെ ആകൃതിയിൽ ചുരുട്ടി വെച്ചതാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അതങ്ങനെ കിട്ടി കഴിയുമ്പോൾ നമ്മള് ഈ ക്രോഷിയോ ഉപയോഗിച്ച് ഇങ്ങനെ നെയ്ത് നെയ്ത് വേണം എടുക്കാൻ അതിനൊരു പ്രത്യേക പാറ്റേണൊക്കെയുണ്ട് അപ്പം അതെല്ലാം ഞങ്ങളെ ടീച്ചർ പഠിപ്പിച്ചു അതനുസരിച്ച് ഞങ്ങളെല്ലാവരും ചെയ്യാൻ തുടങ്ങി അപ്പം ചലഞ്ചിങ്ങായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവറ് കുറവായത് കാരണം അവർ കുറവായത് കാരണം ഞങ്ങൾക്ക് പേന്നത് പഠിച്ചെടുക്കണം ആദ്യായിട്ടൊരു കാര്യം നമ്മള് പഠിക്കുന്നത്തേനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകള് കാണുവല്ലൊ അതുപോലെ ബുദ്ധിമുട്ടും നമുക്കുണ്ടായിരുന്നു അപ്പള് ടീച്ചറ് പറഞ്ഞു തരുന്നു അല്ലെ കാണിച്ച് തരുവയും ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ അത്രം കുട്ടികളാണ് ഇങ്ങനെയൊരു കാര്യം മുമ്പ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ അത് പഠിച്ചേ പറ്റത്തുള്ളു എന്തായാലും അത് അപ്പം നമ്മളത് ചെയ്യുവാണ് ടീച്ചറ് ക്രോഷിയോ ഉപയോഗിച്ച് നൂലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചും കെട്ടിയും ഒക്കെ എടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു ഞങ്ങൾ അതുപോലെ ചെയ്യുന്നു അപ്പം അതിൽ ചലഞ്ച് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നാല് അവറ് കൊണ്ട് ഒരു ഫുൾ മഫ്ളേറ് ഞങ്ങൾ ചെയ്ത് തീർക്കണമായിരുന്നു അപ്പം ഇത് പഠിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ടും ചെയ്യാം നാല് അവറ് ആവുമ്പത്തേനും എല്ലാരും ഇത് കൊടുക്കണമായിരുന്നു

എനിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ ഒരു അതിനോടൊരു പ്രത്യേക ഒരു താല്പര്യം ഇല്ലാത്തത് കാരണം നമുക്കത് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം വീട്ടി വന്നിട്ടാണെങ്കിലും വേറെ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് അപ്പം അത് ഫോളോ ചെയ്യും നമുക്ക് ഇഷ്ടം ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഹോബീസൊക്കെ ഫോളോ ചെയ്തങ്ങനെ നടക്കും ഇത് മാത്രം ചെയ്യത്തില്ലായിരുന്നു അപ്പം രണ്ട് മൂന്ന് ഹവെഴ്സ് ഒക്കെ കഴിഞ്ഞ് കുറേ കുട്ടികളൊക്കെ അതായത് അങ്ങനെയുള്ള താല്പര്യം ഉള്ള കുട്ടികളൊക്കെ അതെല്ലാം വേഗം എന്ന് ചെയ്ത് തീർത്തു എനിക്ക് പക്ഷെ വേഗം എന്ന് ചെയ്ത് വേഗം എന്നല്ല ക്ലാസിൽ പോയിരുന്നു മാത്രമാണ് ഞാൻ അതാത് ക്രാഫ്റ്റിൻ്റെ അവർ മാത്രാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം എൻ്റെ മാത്രം ഒട്ടും ലെങ്ത് ആയിട്ടില്ലായിരുന്നു മഫ്ലയറിൻ്റെ അതിനൊരു സ്പെസിഫിക് ലെങ്തൊക്കെയുണ്ട് അതായത് നമ്മൾ ഷോളിൻ്റെ ലെങ്ത് അല്ല മഫ്ലറിൻ്റെ ലെങ്ത്ത് അതുപോലെ അതിൻ്റെ വിട്ത്തും എല്ലാം ഒരു സ്പെസിഫിക് ഡൈമൻഷനുള്ള ഒരു സംഭവമാണ് അപ്പം അതിൻ്റെതായ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം കണ്ടിന്യൂസ് ചെയ്യുന്നില്ലാത്തത് കാരണം ഇപ്പോൾ ഈ അവറ് ആദ്യത്തെ ഒരു അവറ് വെൻസ്ഡേ ആണെങ്കിൽ നെക്സ്റ്റ് വെൻസ്ഡേ പിന്നെ ഒരു അവറുള്ളൂ അപ്പം അതിനിടയ്ക്ക് ഇത് ചെയ്യാത്തത് കാരണം ഒരാഴ്ച കഴിയുമ്പത്തേക്കും ഞാനതെല്ലാം മറന്ന് പോകുന്നുണ്ടായിരുന്നു പിന്നെ ക്ലാസ്സിൽ പോയി ഇരുന്ന് ഫ്രണ്ട്സ് ചെയ്യുന്നത് കണ്ടിട്ട് പിന്നെയും ചെയ്യും എന്നാലും അങ്ങനെ അപ്പം ഒരു ഒരു സ്കെയിലിൻ്റെ നീളത്തിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മൂന്ന് രണ്ടും മൂന്നും അവറ്കള് കഴിഞ്ഞ് നാലാമത്തെ അവറായപ്പത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എല്ലാരും ചെയ്ത് തീർക്കാറായി എൻ്റെ മാത്രം ഒന്നും ചെയ്യാറായില്ല പിന്നെ ഞാൻ തലേദിവസം അതായത് ഫോർത്ത് അവറിൻ്റെ തലേദിവസം വീട്ടിലിരുന്ന് കുറേ ടൈമെടുത്ത് പക്ഷെ ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ അന്ന് തലേദിവസം രാത്രിയൊക്കെ ഇരുന്ന് ചെയ്ത് തീർത്തു പക്ഷെ എനിക്ക് മനസ്സിലായൊരു കാര്യം ഉണ്ട് നമ്മളെന്ത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നമ്മൾ ചെയ്യാൻ ബാധ്യത ഉള്ള ഒരു കാര്യം നമ്മളെത്ര എഫെർട്ട് എടുത്തിട്ടാണെങ്കിലും ചെയ്യണം അത് നമ്മൾ തലദിവസത്തേക്ക് മാറ്റിവെക്കന്ന് ഒരു ഒരു എന്താ മെസേജ് എനിക്ക് കിട്ടി കാരണം തലേദിവസം ഞാനത്ര കഷ്ടപ്പെട്ടു അങ്ങനെ ഒരു വിധത്തിലാണ് ഞാനത് കപ്ലീറ്റ് ചെയ്തത് എന്നെ കൊണ്ട് പറ്റും എന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ എന്നാലും അതിനോടൊരു നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉള്ളതുകൊണ്ട് ഞാനത് ഒരു വിധത്തിൽ എൻ്റെ ടൈമൊക്കെ കുറേ എടുത്തു ഫിസിക്കലിയും കുറച്ച് ബുദ്ധിമുട്ട് വന്ന് എനിക്ക് അപ്പം കാരണം ഉറങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു